ഞാൻ പിന്നെ ചാർജർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണെന്നറിയില്ല ചാർജർ കിട്ടിക്കഴിഞ്ഞിട്ട് ചാർജ് അങ്ങനെ കയറുന്നില്ല ഫോണിലേക്ക് പിന്നെ അതിൻ്റെ നിപ്പില്ലെ നമ്മള് കുത്തുന്ന ഭാഗം അത് കുറച്ച് വളഞ്ഞാണ് ഇരിക്കുന്നത് നമ്മളിങ്ങനെ പിടിച്ചിരിക്കണം ചാർജ് കയറുന്നില്ല കയറിയാൽ തന്നെ വേഗം ഇറങ്ങും ഒട്ടും ക്വാളിറ്റിയില്ല ചാർജറിന്